ഹലോ ആ ഇത് ക്യാമ്പിന്റെ ഡ്രൈവർ അല്ലെ ആ സ ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നെ മുക്കത്തു നിന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് ആ അതെ അതെ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അന്ന് ടാക്സി ബുക്ക് ചെയ്ത ടൈമില് ഒരു ടൂ തൗസൻഡ് റുപ്പീസ്സ് പേ അഡ്വാൻസ് ആയിട്ട് പേയ്മെന്റ് ചെയ്തിട്ടുണ്ടാരുന്നു ആ അതെ അതെ അത് തന്നെ അത് തന്നെ ആ നമ്മളാ ട്രിപ്പ് ക്യാൻസല് ചെയ്തിരുന്നല്ലൊ അന്ന് ആ ക്യാൻസല് ചെയ്തിരുന്നു അപ്പോൾ ആ നിങ്ങൾ പറഞ്ഞിരുന്നു റീഫണ്ട് ചെയ്യാമെന്ന് ടൂ ഡേയ്സിനുള്ളിൽ റീഫണ്ട് കയറുന്നുവെന്നായിരുന്നു ഇന്നിപ്പോൾ ഫോർ ഡേയ്സ് ആയി അപ്പോൾ അതാണ് ഞാൻ കോള് ചെയ്ത് നോക്കിയത് റീഫണ്ട് കയറിയിട്ടില്ല ആ ഓക്കേ അപ്പം ഓഫിസിൽനിന്നാണൊ അവര് ചെയ്യുക ആ ഓക്കേ നിങ്ങളെന്നാൽ ഓഫീസിത്തെ നമ്പറൊന്ന് എനിയ്ക്കു തന്നാൽ മതി ഞാൻ ആ പേയ്മെന്റ് അവരോട് കോണ്ടാക്ട് ചെയ്തു മേടിച്ചോളാം അ ഓക്കേ ആ നമ്പറ് ആ ഈ നമ്പറിൽ തന്നെ വാട്സപ്പ് ഉണ്ട് ആ വാട്സപ്പില് ചെയ്താൽ മതി ഞാൻ അതില് കോണ്ടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവര് നേരിട്ട് തരുമല്ലൊ അല്ലെ ഓക്കേ ഞാന് പറഞ്ഞേക്കാം നമ്മുടെ പേരെന്താരുന്നു ആ ഓക്കേ ഓക്കേ അ ശരി ഞാൻ പറഞ്ഞോളാം ആയിക്കോട്ടെ താങ്ക്യൂ താങ്ക്യൂ